ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണങ്ങളില് ജീവിക്കാനായിട്ടും ജീവിക്കാനായിരിക്കും കൂടുതല് ഇഷ്ടപ്പെടുന്നുണ്ടാവുക കാരണം ഇന്ന് ഓപ്പര്ച്യൂണിറ്റീസ് ഫുള്ള് പട്ടണങ്ങളിലാണ് നമ്മുടെ ജോലിയും കാര്യങ്ങളും എന്ത് ആണെന്നുണ്ടെങ്കിലും പട്ടണങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഒരു ഒരു പട്ടണത്തില് ജീവിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നത് ഒരു നാട്ടിന് പുറത്തെ പെണ്കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവർക്ക് അതൊക്കെ അവര്ക്ക് തീരെ ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല പട്ടണത്തിലെ ജീവിതവും നമ്മുടെ നാട്ടിലത്തെ ജീവിതവും ടോട്ടലി ഡിഫ്രന്റ് ആണ് അവര്ക്ക് അവരുടെ കള്ച്ചറും കാര്യങ്ങളും ഡ്രസ്സിങ്ങ് ഫുഡ് ഒന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടാന് കഴിയണം എന്നില്ല ഇപ്പോൾ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ ചുറ്റുപാടും രാവിലെ അമ്പലത്തിൽ പോകുന്നതും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് എന്താണ് പട്ടണത്തിൽ പോയിട്ട് ജീവിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം അവിടുത്തെ എന്താണ് സിസ്റ്റവും കാര്യങ്ങളും തിരക്ക് പിടിച്ച റോഡും ആകെ ട്രാഫിക് ഒച്ചയും വിളിയും കാര്യങ്ങളും ഒന്നും അവര്ക്ക് ഉള്ക്കൊള്ളാന് പറ്റുന്നതില് അപ്പുറമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മളെ നാട്ടിൻ പുറത്തെ ഒരു പെൺകുട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാന് കഴിയില്ല പിന്നെ ജോലി സാദ്ധ്യതകള് അവരൊക്കെ രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു അങ്ങനെയുള്ള ഒരു ജോലിയും കാര്യങ്ങളും ആയിരിക്കും നാട്ടിന് പുറത്തുള്ളവര്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുക പട്ടണത്തില് പോയി കഴിഞ്ഞാൽ നമ്മൾ ഊണും ഉറക്കവും ഇല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ ജോലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയായി വരുന്നുണ്ട് നമ്മുടെ ബന്ധത്തിനേക്കാള് കൂടുതല് ജോലിക്ക് ആണ് അവിടെ മുന്ഗണന പോകുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ തോന്നുമ്പോൾ യുവതലമുറയ്ക്ക് നമ്മുടെ നാട്ടില് നിന്ന് ഇപ്പോൾ ഏതൊരാളും നല്ല ജോലി വെല് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ നാട്ടിന് പുറത്തെ ഒരാള്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കുന്നതിലും ആ ചുറ്റുപാടിൽ ജീവിക്കാനും